സംസ്ഥാനത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈക്രിതം നിലനിർത്താൻ വേണ്ടീട്ട് നമ്മളിപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടി ജനിച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ മോനെ അമ്മ എന്നക്കെയാണ് പഠിപ്പിക്കുക അമ്മ അച്ഛൻന്നക്കെയാണ് പഠിപ്പിക്കുന്നത്ത് അപ്പം അവിടം തൊട്ട് നമ്മൾ എന്തെയ്യ നമ്മൾ മലയാള ഭാഷയുടെ ഒരു ഇത് അവിടെ തൊട്ട് തുടങ്ങുവാണ് ഒരു ഒരു പങ്ക് അപ്പം നമ്മൾ സ്കൂൾലക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ മലയാളം പറഞ്ഞിട്ടക്കെയാണ് പഠിപ്പിക്കുക അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ടും മലയാള ഭാഷാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്തപറയാ ആൾക്കാരടുത്ത് ഇല്ലാണ്ടായി തുടങ്ങാണ് കാരണെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് അങ്ങനത്തെ ഭാഷകളിലേക്ക് മാറി അപ്പോൾ മലയാളത്തെ നമ്മൾ നിന്ദിക്കാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ കൂടുതലായിട്ടും മലയാള ഭാഷയിൽ കുറെ വാക്കുകളക്കെ ഉണ്ട് പണ്ടത്തെ കവിമാരും എല്ലാവരും എഴുതിയെക്കുന്ന പലതരം ഭാഷകളും കവിതയൊക്കെ ഉണ്ട് ഇപ്പോൾ അതൊന്നും ഇപ്പോൾ ആരും അങ്ങനെ വായിക്കാറില്ല അപ്പോൾ മലയാളംന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വേരറ്റ് പോകുന്ന ഒരു ഭാഷയായിട്ടാണ് മാറുന്നത് അപ്പം നമ്മൾ കൂടുതലായിട്ടും മലയാള ഭാഷയെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അപ്പം എല്ലാരും നല്ല രീതിയിൽ മലയാള ഭാഷ സംസാരിക്കേം എല്ലാ കാര്യം ചെയ്യുവാണെങ്കിൽ മലയാള ഭാഷ അത്യാവശ്യം നന്നായിട്ട് നിലനിന്ന് പോകും